ഇത്തെ കാലത്ത് പണ്ടത്തെ കാലത്ത് പോലെയൊന്നുല്ല എന്ന് വച്ചാ ഇപ്പത്തെ പി പിള്ളേർക്കന്നൊക്കെ പറയുമ്പോ പഠിക്കാനായിട്ടുള്ള സമയം കിട്ടുന്നുണ്ട് കാലം കിട്ടുന്നുണ്ട് അയിനനുസരിച്ചുള്ള എന്താ അയിനനുസരിച്ചുള്ള സൗകര്യങ്ങളുണ്ട്

ണപ്പം തെങ്ങന്മാർക്കാണെങ്കിലും കൂട്ടാഴ്ത്തികൾക്കാണെങ്കിലും കുമക്കാർക്കാണെങ്കിലും അതക്കൊക്കെ പഠിക്കാനുള്ള സൗകര്യം കിട്ടുന്നുണ്ട് അത്തെ കാലത്ത്ന്നൊക്കെ പറയുന്ന പതിനെട്ട് വയസ്സ് പന്ത്രണ്ട് വയസ്സക്കെ ആകുമ്പതേക്കെ അവരെ കെട്ടിച്ചുും പതിനെട്ട് വയസ്സ് ഇത്രേ വയസ്സ ആകുമ്പതേ അവരെ കെട്ടിിച്ചു വിട്ടീല് ശരിയാവൂല വീട്ടില് നിർത്തല്ല ഇപ്പത്തെ കാലത്ത്ന്ന് പറയുമ്പോ അങ്ങനെയല്ലല്ല മറ്റ കാലത്ത് നല്ല കോക്വാളിഫിക്കേഷനിലാവാണ്ട് ഒറ്റപ്പെണ്ണും പിള്ളേർക്കും കല്യാണമണ് എല്ലാം കോക്ളിഫിക്കേഷൻ ഇല്ലാത്ത ചെക്കമാരേന്ന്ന്നെ പഠച്ച് പഠച്ച് പഠിച്ച് പരിപ്പൊറത്തരാണ് ഇപ്പത്തെ പണ്ടില്ല അതുകൊണ്ട് ഞങ്ങളെ കുടുത്താള നമക്കത് ബുദ്ധിമുട്ടല്ലത് എന്നാലും പെമ്പള്ളേർക്ക് ഇപ്പത്തെ കാലത്ത് പെമ്പിള്ളേർക്ക് നല്ല പഠത്തത്തിന് ഇത് കിട്ടണ്ട അതുകൊണ്ടെല്ലാം ഒതിരില്ല സെറ്റാണ് പിന്ന പഠിക്കട്ടവര് കാരണം അവര് വേറൊരു വീട്ടി പോയി നിൽക്കാനുള്ള ആൾക്കാരാണ് നിക്കാനുള്ള ആൾക്കാരാണ് അവര് മനസിലായ വേറെ വീട്ടി പോയി നിക്കാനുള്ള ആൾക്കാരാണ് അപ്പ അവർക്ക് കൊറച്ച് വിദ്യാഭ്യാസം ഇല്ലെങ്കി തീർന്ന പിന്നെന്ന് പറയണത് നമ്മളാണ് പിന്നാ അ അപ്പ അങ്ങനെ അപ്പ പറയാ ആ അങ്ങനെയക്കെ ഇപ്പ ക വിദ്യാഭ്യാസം കിട്ടണ്ടല്ല അതിന്നെ വല്യ കാര്യാണ് കാരണം എത്രേയും പെട്ടന്ന് കെട്ടിച്ചൂടണാർന്ന് വീട്ടുകാര് വീട്ടുകാര എത്രേ പെട്ടന്ന് കെട്ടിച്ചൂടാന്ന് നോക്കള്ളൂ പക്ഷെ ഇപ്പത്തെ കാലട്ട അങ്ങനെയല്ല ഇത്ത് കടനം കിട്ടേണ്ടവർക്ക്

അതുകൊണ്ട് പഠിക്കാനുള്ള സാഹചര്യം അവർക്ക് ഇണ്ടാവണണ്ട് പിന്നെ പി എൻ്റെത്താത്തറി ടീച്ചറർന്ന് ആള് ഈ അവസ്ഥ തന്നെ സത്യംമാരല്ല ഈ അവസ്ഥ തന്നെ പുള്ളിക്കാലത്തി ഒരു ദെർസില് ഒരു ഹോസ്റ്റല മറ്റേ പർത കിട്ടാണ് അങ്ങൻത്തരു ഹോസ്റ്റല പോയിന്ന് പഠിച്ച് പഠിച്ച കഴിഞ്ഞ് അവര് മറ്റേ അറബിക് ടീച്ചറ ആവേണ്ട ഒരു നെല വരെ എത്തയതാണ് അറബിക് ടീച്ചറിൻ്റെ ക്വാളിഫിക്കേഷൻ വരെ എത്തയതാണ് ആള് ആ എക്സാം എഴുതി എറങ്ങിഈ പുള്ളിക്കാലയത്തെലം അറബിക് ടീച്ചറായിട്ട് എറങ്ങി വന്നേന് ീച്ചേഴ്സ് പിള്ളേരെ പഠപ്പിക്കൻററി ടച്ചറായിട്ട്റങ്ങവരാറ് ഇപ്പ തതാക്കന്തോ പത്തൊമ്പത് പതിനെട്ട് വയസ്സള്ളൂ താതാനം കെട്ടിിച്ച വിട്ട് താതാടെ പടത്തവിടം പൊടങ്ങി ഇവര് ഞങ്ങളോട് എന്താ പറഞ്ഞാ ഇവര് ഞങ്ങളോട് അല്ലെിൻ്റെ വീട്ടുകാല ഞങ്ങളോട് പറഞ്ഞു ഞങ്ങ നോക്കിക്കോളാ പഠത്തങ് കല്യാണം കഴിഞ് കഴിഞ്ഞാ ഞങ്ങ പഠത്തന്ന് നോക്കിക്കോള ജോലിക്ക് വിട്ടോള പണിക്ക് വിട്ടോള പടത്ത് മറ്റേ ക്ലാസ്സിനൊക്കെ വിട്ടോളാത അവരി പറഞ്ഞ് ഞങ്ങള ഇതാക്കിതാണ് ഇപ്പൊതെ ഇത്താ തന്നെ പഠത്ത കൂടി അതുപോലെ തന്നെ ഇതുോലന്ന ഒരു വീട്ടുകാരും ആർക്കും ആർക്കും ഇണ്ടാവാണ്ടി കട്ടെ ഇതുോല

ചെപ്പം പിള്ളേർക്കും ഒരുവിതോക്ക എന്താ പറയാ ക്വാളിഫിക്കേഷൻസൊക്കെ പഠിക്കാനുള്ള ഇതും സാഹചര്യങ്ങളൊക്കെ ഇണ്ട് അവതിി